ജൈവ വാതക പ്ലാന്റ് കണ്ടിട്ടുണ്ട് എന്റെ വീട്ടിലും ഈ ജൈവ വാതക പ്ലാന്റ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ വീട്ടിലും ഉണ്ട് അത് ഭയങ്കര ഉപകാരവും ആണ് എല്ലാവർക്കും വീട്ടിലത്തെ അടുക്കളയിലത്തെ സാധനങ്ങൾ പച്ചക്കറി തൊട്ടിട്ട് മീന് മാംസം അതിന്റെ വേസ്റ്റ് വരെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊണ്ടുപോയിട്ട് ആദ്യം ഞങ്ങൾ ആ ഡീപ്പ് കമ്പോസ്റ്റിൽ ഇടും അതിനനുസരിച്ച് ഇട്ട് ഒരു മരുന്ന് അടിച്ച് കൊടുക്കുകയും ചെയ്യും അത് അവിടെ ഇരുന്ന് ദ്രവിച്ച് അത് വളം ആകുകയാണ് ചെയ്യുന്നത് അതിനെ എടുത്തിട്ട് നമ്മള് ചെടികൾക്ക് ഇട്ട് ഞങ്ങള് ഇട്ടു കൊടുക്കാറുണ്ട് അതല്ലാതെ വേറാരെങ്കിലും ചോദിച്ചാലും ആ വളം കൊടുക്കാറുണ്ട് നമ്മള് ചെടിക്ക് ഇടുമ്പോൾ മറ്റേ വളങ്ങളെക്കാൾ അജൈവ വളങ്ങളെക്കാട്ടിയും ജൈവവളമാണ് ഭയങ്കര പ്രാധാന്യം അപ്പോൾ അത് ഇട്ട് കൊടുക്കുമ്പോൾ ചെടീൻ്റെ വളർച്ചയും നല്ലപോലെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതല്ല ഞങ്ങളുടെ അയൽവാസിൻ്റെ വീട്ടിൽ എല്ലാവിടെവിടേയും എൻ്റെ വീടിൻ്റെ ചുറ്റുപാട് എല്ലാവരും ഈ ജൈവ വാതക പ്ലാന്റ് വെച്ചിട്ടുമുണ്ട് അതല്ലാതെ അതല്ലാതെ ഞാൻ ഈ വളത്തിന് മറ്റ് ആൾക്കാർക്ക് കിലോ കണക്കിന് ഞങ്ങള് കൊടുക്കാറുമുണ്ട് അതുകൊണ്ട് നല്ല ഉപയോഗമാണ് പിന്നെ നമ്മള് ഈ വീട്ടിലത്തെ അടുക്കള വേസ്റ്റ് അവിടെയും ഇവിടെയും കൊണ്ട് ഇടുമ്പോൾ അതിന് പ്രത്യേകിച്ച് മണവും എല്ലാം വരുമ്പോൾ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ട് ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു എന്താണ് വാതക പ്ലാന്റില് ഇടുമ്പോൾ നല്ലപോലെ നമുക്ക് വളമായി ഇത് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്താണ് അതിന്റെ ഒരു മണമോ ഒന്നും ഒന്നുമില്ല പിന്നെ നമ്മൾ അത് അടച്ചു വെച്ചിട്ടാണ് വെക്കുന്നത് പിന്നെ അത് വളമാകാൻ ഒര് പത്ത് പതിനഞ്ച് ദിവസങ്ങൾ പിടിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ വളം എല്ലാ തെങ്ങ് തൊട്ടിട്ട് എന്തെല്ലാം നമ്മുടെ വീട്ടിൽ ചെടികൾ ഉണ്ടോ മരങ്ങൾ ഉണ്ടോ എല്ലാത്തിനും ഉപകാരം ഉള്ളതാണ് ഇപ്പോൾ തന്നെ മീനിന്റെ വേസ്റ്റ് നമ്മൾ പുറത്ത് ഇടുമോ മാംസത്തിൻ്റെ വേസ്റ്റ് പുറത്ത് ഇടുമോ അങ്ങനെ നായ്ക്കൾ വലിച്ചുകീറി അവിടെയെല്ലാം പരത്തുകയും ചെയ്യും പിന്നെ ആ നായ്ക്കൾ പിന്നെ വെള്ളത്തിലും കൊണ്ടിടുമ്പോൾ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ വെച്ചാൽ അത് അയൽക്കാർക്കും ബുദ്ധിമുട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുക ആ ഒരു എയിമാണ് നമ്മളുടെ അതുകൊണ്ട് എന്റെ ഈ പ്ലാന്റ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് കൊണ്ട് യാതൊരു തടസ്സവുമില്ല പിന്നെ ഇത് നമ്മള് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വീടിന്റെ അവിടെയും ഒന്നുമല്ല നമ്മുടെ വീടിന്റെ പുറകു വശത്താണ് അപ്പോൾ അതുകൊണ്ട് അത് വെച്ചതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ആ ഒരു സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും പിന്നെ അത് ഇടയ്ക്കിടക്ക് മാത്രം ഒന്ന് ആ വളത്തിനെ ഒന്ന് മാറ്റിമാറ്റി അടുക്കള വേസ്റ്റ് പച്ചക്കറിയുടെ വേസ്റ്റ് എന്തെല്ലാമുണ്ടോ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അതിന് അതിന് അതിനനുസരിച്ചിട്ട് ഒന്ന് മരുന്നടിച്ച് കൊടുത്താൽ യാതൊരു മണമോ ഒന്നും ഉണ്ടാവില്ല പിന്നെ പതിനഞ്ച് ദിവസം അതിനെ എടുത്ത് മണ്ണിനോട് മിക്സ് ചെയ്തിട്ട് അതിനെ നമ്മൾ ചെടികൾക്ക് ഇട്ടു കൊടുക്കുകയാണെന്ന് വെച്ചാൽ നല്ലപോലെ വളം കിട്ടുകയും ചെയ്യും ചെടികൾ നല്ലപോലെ തഴച്ച് വളരുകയും ചെയ്യും പിന്നെ അതിന്റെ പുഴുക്കളും നൊറയൂല്ല അതിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോഴേക്കും ചെടികൾക്ക് ഒരു നല്ല വളവുമാണ് നല്ല ഒരു ഇതും നല്ല ഒരു സംരക്ഷണവും ആണ് അതല്ലാതെ ഞാൻ ഇപ്പോൾ എന്താണ് അവിടത്തെ പ്ലാന്റുകളിലേക്ക് ആർക്കെങ്കിലും ചോദിക്കുകയാണ് ഫാമുകൾക്ക് ചോദിക്കുകയാണെന്ന് വെച്ചാൽ ഈ വളം കിലോ കണക്കില് കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല അതിൽ നിന്ന് ഒരു സാമ്പത്തിക വരുമാനവും ഉണ്ട്